ഓക്കെ ഞാനൊരു സിസ്റ്ററാണ് അതുകൊണ്ടുതന്നെ ആ രീതിയില് പറയാമല്ലോ ഇപ്പോള് എൻ്റെയൊരു സുഹൃത്ത് ഓക്കെ എന്റെയൊരു സുഹൃത്ത് എത്രത്തോളം വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഞാന് പറയും എത്രത്തോളം പഠിക്കാന് പറ്റുമോ ഞാൻ പറയുന്നത് പഠിക്കുക അല്ലെങ്കില് ഒരു വിദ്യാഭ്യാസം നേടുക അതൊരു ജോലി കിട്ടി ഇത്രയും പഠിച്ച് ഒരു ജോലി കിട്ടി അതോടുകൂടി തീരുന്നതല്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ മരണം വരെ നമുക്ക് പഠിക്കാനുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങള് പുതിയ പുതിയ നോളജ് അക്വയര് ചെയ്യുക പുതിയ പുതിയ കാര്യങ്ങള് പഠിക്കുക മീൻസ് ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു മേഖലയിതാണ് ഇപ്പം ഞാൻ ഫാഷൻ ഡിസൈനിങ്ങ് ആണ് അതോടെ തീരുന്നില്ല എൻ്റെ ഈ പഠനം ഫാഷൻ ഡിസൈനിങ്ങിൽ എന്തൊക്കെ വെറൈറ്റീസ് കണ്ടുപിടിക്കാന് പറ്റും അതിലെന്തൊക്കെ പഠിക്കാന് പറ്റും ഇനിയിത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന് പറ്റും അങ്ങനെ ഞാനോരോ ദിവസവും എൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കില് എൻ്റെ പഠനമേഖലയെ ഞാൻ വ്യാപിപ്പിക്കുന്നതിന് അനുസരിച്ചിട്ടാണ് നമ്മളെത്രത്തോളം വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോള് ഞാനാണെങ്കിൽ ഞാനെൻ്റെ ഫ്രണ്ടിനെ എന്താണ് പ്രിഫര് ചെയ്യും നിനക്കെന്തറ്റം വരെ പഠിക്കാൻ പറ്റുമോ നിൻ്റെ മരണം വരെ നിൻ്റെ പാഷനനുസരിച്ച് നിനക്ക് എത്രത്തോളം പഠിക്കാന് പറ്റുമോ അത്രത്തോളം പഠിക്കുക ഞാൻ പൂർണ സപ്പോർട്ട് നൽകും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോയെന്ന് ചോദിച്ചാല് ഇന്നത്തെ ഈ കാലഘട്ടത്തില് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ചില മേഖലകളിലൊക്കെ കാണും ഇപ്പം സപ്പോസ് ദൂരേക്ക് പോയി പഠിക്കുക ഹോസ്റ്റലില് നില്ക്കുക പേരൻസിൻ്റെ ഇടയില് പേരെൻസിനോട് എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലത് വലിയ പ്രശ്നമല്ല എങ്കിലുമുണ്ട് ചില വീടുകളില് ദൂരെ പോകേണ്ട ഹോസ്റ്റലിൽ പോകേണ്ട വീട്ടില് തന്നെ നിന്ന് പഠിച്ചാല് മതി അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ എങ്കിലും ഇന്ന് കുട്ടികള് കൂടുതലും പുറത്തേക്ക് പോകാനും കൂടുതൽ പഠിക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ എങ്കിലും പേരൻറ്റ്സിൻ്റെയിടയിൽ നിന്നൊരു കൊസ്റ്റെയ്നിങ് ഉണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചാല് പോരെ അതല്ല ദൂരേക്ക് പോയി പഠിക്കുക പെണ്കുട്ടികൾക്കും ആണ്കുട്ടികളെ പോലെ തന്നെ ഫ്രീഡം നൽകുക അവര്ക്ക് പഠിക്കാന് പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇന്നധികം ബുദ്ധിമുട്ടില്ല എങ്കിലും ബുദ്ധിമുട്ടുകള് ചില മേഖലയിലുണ്ട് സോ ആ ചില മേഖലയിലുള്ള ആ ബുദ്ധിമുട്ടുകളെ പോലും റിക്കവര് ചെയ്ത് ഒത്തിരിയേറെ പഠിക്കാനായിട്ട് പഠിച്ച് നല്ല ജോലി മേടിക്കാനായിട്ട് ജോലി മേടിച്ചാലും വീണ്ടും പഠിക്കാനായിട്ട് അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയില് ഇന്ന് പെണ്കുട്ടികളും ഉയർന്നുവരുന്നുണ്ട്